ആഴമുള്ള സ്ഥലങ്ങളിൽ നീന്തുക നീന്താൻ ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കണം പിന്നെ മണൽ പുഴകളിലൊക്കെയാണെങ്കിൽ മണലൊക്കെ വാരി പിന്നെ വീടിന് ആവശ്യമായ മണലൊക്കെ വാരി കുഴികളും ഒക്കെ ആക്കി നല്ല ആഴമുള്ള സ്ഥലങ്ങളാവും അപ്പോൾ കഴിയുന്നതും അതിലൊന്നും നീന്താതെ ഇരിക്കുക കുട്ടികൾ പിന്നെ കളിക്കാൻ വേണ്ടി കുളത്തിലും വല്ല പിന്നെ ഇതുള്ള കുളങ്ങളിലൊക്കെ ചാടി മറിഞ്ഞ് നീന്തുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവരെയൊക്കെ ശ്രദ്ധിക്കണം നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ പുഴയിലൊന്നും നീന്താതിരിക്കുക പിന്നെ മലമ്പ്രദേശത്തുള്ള ചോലകളൊക്കെയുണ്ടാവും അപ്പം ചോലകളിലൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും മഴയും കാറും വന്ന് മഴവെള്ളം കുത്തിയൊലിച്ച് വരുന്നതൊന്നും നമ്മളറിയില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നീന്തുമ്പോൾ മലവെള്ളം വരും അതൊക്കെ ശ്രദ്ധിക്കണം നീന്താൻ അറിയാത്ത കുട്ടികളെ കഴിയണതും കുളങ്ങളിലോ പുഴകളിലോ വിടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ കുളവാഴ എന്ന് പറഞ്ഞിട്ട് ചണ്ടി ചണ്ടിയെന്നൊക്കെ പറയും ഞങ്ങളെ നാട്ടിൽ അങ്ങനെയുള്ള കുളങ്ങളൊക്കെയുണ്ടാവും കുട്ടികൾക്ക് നല്ല അതൊരു രസമായിട്ടാണ് കുളത്തിൽ ചാടി മുങ്ങി പൊങ്ങുന്നതൊക്കെ ഇങ്ങനെയുള്ള കളികളൊക്കെ കുളത്തിൽ വച്ച് കളിക്കുമ്പോൾ കുട്ടികളറിയാതെ ചിലപ്പോൾ മുങ്ങിപ്പോയാൽപ്പിന്നെ പൊന്തി വരാൻ കഴിയാതെ വരും അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിലതേപോലെ അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടി കളിച്ചും കൊണ്ട് നിൽക്കുമ്പോൾ കുളത്തിലെ ചണ്ടി കഴുത്തിൽ ചുറ്റിയിട്ട് അങ്ങനെ കുറേ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികളെ പരമാവധി കുളത്തിലും പുഴകളിലും മലവെള്ളപ്പാച്ചലിലൊന്നും വിടാതെ ശ്രദ്ധിക്കണത് ഏറ്റവും നല്ലത്